ഒരു അവസരം ലഭിച്ചാൽ ഞാൻ മറ്റു രാജ്യങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമാണ് ഓട്ടൻതുള്ളൽ ഓട്ടൻതുള്ളലെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനും കാണുവാനും ഇഷ്ടമുള്ള ഒരു കലാരൂപം ഓട്ടംതുള്ളാലാണ് വളരെ നർമ്മ ബോധത്തോടെ അവതരിപ്പിക്കുന്നതും എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നർമ്മ രൂപത്തിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതുമായ ഒരു കലാരൂപം ആയിട്ടാണ് ഓട്ടൻതുള്ളൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മറ്റു രാജ്യങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഒരു കലാരൂപമാണ് നമ്മുടെ തെയ്യം നമ്മുടെ സ്വന്തം തെയ്യം നമ്മുടെ കണ്ണൂരിൻ്റെ കലാരൂപമായ തെയ്യം തെയ്യം കലാരൂപങ്ങൾ നമ്മൾ മറ്റേ രാജ്യങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള മറ്റു ജില്ലകളിലുള്ള ആളുകൾക്ക് കൂടി ഇത് അറിയാത്ത കാര്യമുണ്ട് കുറെ കുറെയധികം ആളുകൾക്ക് തെയ്യത്തിനെ കുറിച്ച് അറിയില്ല അത് ഒരു ഓരോരുത്തരും തെയ്യത്തിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും ആ തെയ്യത്തിൻ്റെ ഓരോരോ പു പുറകിലുള്ള ഓരോ തെയ്യക്കോലങ്ങളുടെ പുറകിലുള്ള കഥകളും അറിയണമെന്നും അത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം തെയ്യക തെയ്യകലാകാരന്മാർ അവർ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിന് അത്രമാത്രം മൂല്യമുള്ളതാണ് അത് എല്ലാവരും എല്ലാ രാജ്യക്കാരും കാണണമെന്നും അറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു